ഞങ്ങൾക്കു പൂന്തോട്ടം ഉണ്ട് അങ്ങനെ പക്ഷി വരുമോ എന്നു ചോദിച്ചാല് പക്ഷിയും വരാറുണ്ട് ചില ചെറിയ ചെറിയ കുരുവികള് മൈനകള് പിന്നെ പ്രാവുകള് അങ്ങനത്തെ പക്ഷികളൊക്കെ വരാറുണ്ട് പക്ഷികളവിടെ വന്നിരുന്ന് ഈ സൈഡില് ഞങ്ങള് ചെറതായിട്ട് തീറ്റയും വെള്ളവുമൊക്കെ ഇടയ്ക്കിടയ്ക്കു വച്ചുകൊടുക്കും വെള്ളമാണ് കൂടുതലെപ്പോഴും വച്ചുകൊടുക്കാറുള്ളത് ഇപ്പോള് ചൂടുസമയമായതുകൊണ്ട് പക്ഷികൾക്ക് വെള്ളമൊക്കെ വേണമല്ലോ അപ്പോള് അതുകൊണ്ട് ഈ ഒരു മഗ്ഗില് അല്ലേ വലിയൊരു പാത്രത്തില് അല്ലേ ഒരു പ്ലേറ്റില് എന്തേലും അവിടെ സൈഡിലോട്ടുവല്ലോം കൊണ്ടുവയ്ക്കും അപ്പോള് അവര് വന്ന് കുടിക്കുകയും ചെയ്യും അതിന്റെയകത്തു കയറിക്കിടന്ന് കുളിക്കുകയും ചെയ്യും അവര് ഓരോ നല്ല രസമാണ് നമ്മളഅ ദൂരെനിന്നു കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് ഇപ്പം അവിടെ കുറേ കുറേ നേരം അവിടെ ഇങ്ങനെ പൂന്തോട്ടത്തില് ചില സമയത്ത് ഇങ്ങനെ എന്തേലും ചെറിയ ചെറിയ തീറ്റകളുണ്ട് തീറ്റ ഇങ്ങനെ വിതറിയിടും അപ്പോള് ആ പൂന്തോട്ടത്തില് എല്ലാവരും വന്നിങ്ങനെ ഇരിക്കും അപ്പോള് കുറേ പൂക്കളുള്ള പൂന്തോട്ടമാണ് പിന്നെ നമ്മുടെ ഇവിടെ ഇത്രയും തണുപ്പായതുകൊണ്ട് ഇടുക്കി ജില്ലയായതുകൊണ്ട് ഒത്തിരി തണുപ്പില്ലേ അപ്പോള് തണുപ്പായതുകൊണ്ടിങ്ങനെ ഓരോ കാക്കകളൊക്കെ ഭയങ്കരമായിട്ടു വരും പിന്നെ ഇവിടെ കൂടുതൽ ശല്യം ഈ കരീലക്കിളിയെന്നു പറഞ്ഞൊരു കിളിയുണ്ട് ആ കരീലക്കിളി നമ്മുടെ പെരയ്ക്കകത്തൊക്കെ കയറും പിന്നെ വാതുക്കലൊക്കെ വന്നിരിക്കും നമ്മളപ്പോള് വാതില്ക്കലിരുന്നാലും കഴിച്ചിട്ട് വല്ലതും അവിടെ ബാലൻസ് വല്ലതും വേസ്റ്റ് വല്ലതും ഉണ്ടെങ്കില് അതു വല്ലതും കൊത്തിയെടുത്തുകൊണ്ട് വെളിയിലോട്ട് പോകും വെളിയിലോട്ടു പോയാൽ അവർക്ക് അതിൻ്റെ കരിയില കുഞ്ഞുങ്ങൾക്കു കൊടുക്കും അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാറുണ്ട് പിന്നെ പൂന്തോട്ടത്തില് ഒറ്റ മൈന രണ്ട് മൈനയൊക്കെ വന്നിരിക്കും ഒറ്റ മൈന വരുമ്പോഴാണു നമ്മള്ക്കു പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ടാവുന്നു എന്നൊക്കെ പറയും താങ്ക്യൂ